ഹലോ ഇത് ഉഷ കച്ചേരി സെൻറർ ആണോ എനിക്കാണെങ്കിൽ ഒന്ന് പതിനേഴാം തീയതിയിലേക്കൊരു കച്ചേരി സെൻറർ ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിൻറേതായ കാര്യം അറിയാൻ വേണ്ടി ആണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം എന്നാണ് നയ ഞങ്ങൾക്ക് നമുക്ക് നമുക്ക് നാല് പേർക്കാണ് വേണ്ടത് അപ്പം അവിടെ ഇരിക്കാൻ ഉള്ള സ്റ്റേജിന് അത്രയും വീതി ഉണ്ടോ എങ്ങനെ ഒക്കെയാണ് അതിൻ്റെ ഇത് എത്ര ഞങ്ങൾ പൈസയും അപ്പം ഞങ്ങൾ ക്യാഷ് ക്യാഷ് ആയിട്ട് വേണോ അടക്കാൻ അതോ ഫസ്റ്റ് ഞങ്ങൾ ഡേ ആദ്യം ഇത്ര എമൗണ്ട് തരണോ അഡ്വാൻസ് തരണോ അതോ ഞങ്ങൾ എല്ലാംകൂടെ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം അതിൻറെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാമോ